എനിക്ക് പുറത്തുനിന്ന് കഴിക്കുന്ന ഭക്ഷണത്തേക്കാളും കൂടുതൽ ഇഷ്ടം വീട്ടിൽ ഉണ്ടാക്കുന്ന ഭക്ഷണമാണ് അതുകൊണ്ട് ഞാൻ വീട്ടിലെ പല പാചകവും പാചകം പല തരത്തിലുള്ള പാചകം ഉണ്ടാക്കാൻ ശ്രമിക്കാറുണ്ട് വീട്ടിൽ ഞാനൊരു ജോലിയ്ക്ക് പോകുന്ന സ്ത്രീയാണ് അതുകൊണ്ട് ലീവ് കിട്ടുന്ന ദിവസങ്ങളൊക്കെ വീട്ടിൽ കുട്ടികൾക്ക് പലഹാരങ്ങൾ ഉണ്ടാക്കാറുണ്ട് വീട്ടിൽ ആര് എളുപ്പമെന്നു പറയുന്ന നമ്മൾ പണ്ടൊക്കെ ആണെങ്കിൽ അരി അരച്ച് ഉണ്ടാക്കുന്ന ഭക്ഷണമാണ് കൂടുതലും കഴിക്കുക ഇപ്പം അരയ്ക്കുന്നതിന് പകരം മില്ലിൽ നിന്ന് പൊടിച്ചു കൊണ്ടുവന്നാൽ അങ്ങനെയുള്ള ഭക്ഷണം എളുപ്പത്തിൽ രാവിലെ നൂൽ പുട്ടോ വെള്ളയപ്പം ഇതൊക്കെ ഉണ്ടാക്കാൻ പണ്ടത്തേതിനെക്കാളും കുറേ എളുപ്പമാണ് പണ്ടൊക്കെയാണെങ്കിൽ അതരച്ചിട്ട് അരച്ചു തന്നെ ഉണ്ടാക്കാറ് ഇപ്പോൾ അങ്ങനെ പൊടിച്ചു കൊണ്ടുവരുന്നതുകൊണ്ട് അങ്ങനെ ഫുഡ്ഡൊക്കെ ഉണ്ടാക്കാൻ എളുപ്പമാവുന്നുണ്ട് അതുപോലെ പലതരത്തിലുള്ള നോൺവെജ് ഐറ്റംസും ഉണ്ടാക്കാറുണ്ട് ബിരിയാണി അതുപോലെ അതൊക്കെ നല്ല രീതിയിൽ എളുപ്പത്തിലും നല്ല രീതിയിലും നല്ല ടേസ്റ്റോടു കൂടിയും ചെയ്യാൻ പറ്റുന്നു അതുപോലെ നാലു മണിക്കുള്ള പലഹാരങ്ങളും പലതും വീട്ടിൽ തന്നെ ഉണ്ടാക്കാറുണ്ട് പണ്ടൊക്കെ ഹലുവയോ കേക്കോ ആണെങ്കിൽ അതൊക്കെ പുറത്തുനിന്ന് തന്നെയാണ് വാങ്ങിയിട്ട് കഴിക്കാറ് ഇപ്പോൾ അതൊക്കെ വീട്ടിൽ ഉണ്ടാക്കിയിട്ടാണ് മക്കൾക്കൊക്കെ കൊടുക്കാറ് അതൊക്കെ എളുപ്പത്തിലും ഉണ്ടാക്കാനും പറ്റുന്നുണ്ട് അതുപോലെ മിക്സ്ചർ മിക്സ്ചർ ഞാൻ വീട്ടിലുണ്ടാക്കി തന്നെ കുട്ടികൾക്ക് കൊടുക്കാറ് പിന്നെ പിന്നെ നല്ല നല്ല അച്ചാർ മീനച്ചാർ മാങ്ങ അച്ചാർ നാരങ്ങ അച്ചാർ ഇതൊക്കെ എളുപ്പത്തിൽ വീട്ടിൽ തന്നെ ഉണ്ടാക്കും അതുപോലെ ചമ്മന്തി പുളിച്ചമ്മന്തി ചെമ്മീൻ ചമ്മന്തി ഇതൊക്കെ ഉണ്ടാക്കി ഇതൊക്കെ ഉണ്ടാക്കി ടൈറ്റ് കണ്ടെയ്നറിൽ ഇട്ടു വയ്ക്കാറുണ്ട് പിന്നെ പലതരത്തിലുള്ള ഇലക്കറികൾ ഉണ്ടാക്കാറുണ്ട് ഇതൊക്കെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന വിഭവങ്ങളാണ്

പായസമാണെങ്കിലും പല തരത്തിലുള്ള പായസം ഉണ്ടാക്കി കൊടുക്കാറുണ്ട് സേമിയ പാലുപയോഗിച്ചുണ്ടാക്കുന്ന പായസം വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല എന്നാലും ഇപ്പോൾ വെറും ആ ഒരു പാക്കറ്റ് എല്ലാ മിക്സ് ഉള്ള ഒരു പാക്കറ്റ് കിട്ടുന്നതുകൊണ്ട് വെറും പാൽ തിളുപ്പിച്ച് അത് ഇട്ടു കൊടുത്താൽ എളുപ്പത്തിൽ പായസം ഉണ്ടാക്കാൻ പറ്റും തേങ്ങ അരച്ച് അതിൻ്റെ പാലെടുത്ത് കുറേ ബുദ്ധിമുട്ടേണ്ട ആവശ്യമൊന്നും വരുന്നില്ല അതുപോലെ തേങ്ങാപ്പാലെടുക്കുന്നതാണെങ്കിൽ ആ തേങ്ങ ചിരകിയിട്ട് ആ പാലെടുക്കാൻ പിഴിഞ്ഞെടുക്കാൻ കുറേ കുറേ പണിയുണ്ട് അപ്പം നല്ല നല്ല നല്ല നല്ല ഐറ്റംസ് ഇപ്പം തേങ്ങാപ്പൊടി പാക്കറ്റായിട്ട് വരുന്ന ആ പൊടി കലക്കിയിട്ട് നമുക്ക് നൂൽപുട്ടും അതിന് കറിക്കും വേണ്ട പല വിധത്തിലുള്ള പല വിധത്തിൽ തേങ്ങ ഉപയോഗിച്ച് ഉണ്ടാക്കുന്ന കറിക്ക് വേണ്ട പൊടി എളുപ്പത്തിൽ ചേർത്ത് എളുപ്പത്തിൽ പാചകം ഉണ്ടാക്കാൻ പറ്റും കുറേ തേങ്ങ അരച്ച് കുറേ ബുദ്ധിമുട്ടേണ്ട ആവശ്യമൊന്നും വരുന്നില്ല അതേ രീതിയിൽ കുറേ ഉപ്പേരി അങ്ങനത്തെ അങ്ങനെയൊക്കെ മെഴുക്കുപുരട്ടി അങ്ങനെയൊക്കെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന കുറേ ഐറ്റംസും തയ്യാറാക്കാറുണ്ട് പിന്നെ പാചകത്തിൽ പിന്നെ കുറച്ച് ബുദ്ധിമുട്ടുള്ളത് പറഞ്ഞാൽ കുറേ ആൾക്കാർക്ക് നമ്മൾ വീട്ടിൽ ഉണ്ടാക്കുന്ന കുറച്ച് ആൾക്കാർക്ക് ഉണ്ടാക്കുന്നതും കുറേ ആൾക്കാർക്ക് കുറെ വിരുന്നുകാറൊക്കെ വന്നാൽ കുറേ ആൾക്കാർക്ക് ഉണ്ടാക്കുമ്പോൾ ആ ഒരു ബുദ്ധിമുട്ടല്ലാണ്ട് പാചകത്തിൽ വലിയ ബുദ്ധിമുട്ടായിട്ട് വേറെയൊന്നും എനിക്ക് ഇതുവരെ തോന്നിയിട്ടില്ല എല്ലാം പാചകം നമ്മൾ കട്ട് ചെയ്തു വച്ചിട്ട് എല്ലാം ചെയ്യുമ്പം വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റും എന്ന് അങ്ങനെ ബുദ്ധിമുട്ടൊന്നും തോന്നിയിട്ടില്ല പിന്നെ നമുക്ക് വീട്ടിൽ വീട്ടിൽ നിന്ന് ഉണ്ടാക്കുമ്പോൾ നമ്മളെ സ്വാദിനനുസരിച്ച് നല്ല നല്ല ഭക്ഷണം ഉണ്ടാക്കി കഴിക്കാനും പറ്റുന്നുണ്ട് അതുപോലെ പുറത്തു നിന്ന് വാങ്ങുമ്പോൾ നമുക്ക് അത്ര വിശ്വസിച്ചിട്ട് കഴിക്കാൻ പറ്റില്ല അതിൽ എന്തൊക്കെ ഉപയോഗിക്കുന്നു ഏത് എണ്ണയിലാണ് അത് ഉണ്ടാക്കുന്നത് അങ്ങനെ എന്തൊക്കെയോ എങ്ങനെ നല്ല വൃത്തിയോടെ ചെയ്യുന്നുണ്ടോ ഇതൊന്നും നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നില്ല നമ്മൾ തന്നെ വീട്ടിൽ ഉണ്ടാക്കുന്നത് നമുക്ക് ധൈര്യത്തോടെ ഉപയോഗിക്കാൻ പറ്റും എന്തായാലും നമ്മൾ കൂടുതൽ ഒരു പ്രാവശ്യം ഉപയോഗിച്ച എണ്ണ പിന്നെയോ വീണ്ടും വീണ്ടും അതിൽതന്നെ ഭക്ഷണം ഉ ണ്ടാക്കി കഴിക്കാറില്ല അത് നമുക്ക് ശരീരത്തിന് ബുദ്ധിമുട്ടെന്നറിയുന്നതു കൊണ്ട് അത് അങ്ങനെ നല്ല രീതിയിൽ തന്നെ നമ്മൾ എല്ലാ ഫുഡ്ഡും ഉണ്ടാക്കി നല്ല എളുപ്പത്തിൽ ഫുഡ്ഡ് ഉണ്ടാക്കാൻ വലിയ പാടൊന്നുമില്ല കുറച്ച് ശ്രമിച്ചു കഴിഞ്ഞാൽ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്നതാണ് വലിയ പാടൊന്നുമില്ല എളുപ്പത്തിലുണ്ടാക്കി നല്ല സ്വാദോടെ നമുക്ക് കഴിക്കാനും പറ്റും അതുകൊണ്ട് കൂടുതലും ഞാൻ വീട്ടിൽ തന്നെ ഉണ്ടാക്കും വീട്ടിൽ ഉണ്ടാക്കുമ്പോൾ വലിയ ബുദ്ധിമുട്ടൊന്നും തോന്നിയിട്ടും ഇല്ല കൂടുതൽ ഉണ്ടാക്കുമ്പോൾ മാത്രമേ ആ ഒരു പ്രശ്നം വന്നിട്ടുള്ളൂ അല്ലാണ്ട് എന്നും നമ്മൾ ഒരു നാലഞ്ചു മെമ്പേഴ്സ് നമ്മളെ വീട്ടിലുണ്ട് അവർക്ക് ഉണ്ടാക്കുമ്പോൾ നമുക്കതൊരു ബുദ്ധിമുട്ടായിട്ട് ഒരിക്കലും തോന്നിയിട്ടില്ല എളുപ്പത്തിൽ തന്നെ ചെയ്യാനും പറ്റുന്നു കുറേ കൂടുതലുണ്ടാക്കുമ്പോൾ മാത്രമാണ് അതൊരു ബുദ്ധിമുട്ടായിട്ട് തോന്നിയിട്ടുള്ളൂ അല്ലാതെ പാചകം എനിക്കൊരിക്കലും ഒരു ബുദ്ധിമുട്ടായിട്ട് ഇതുവരെ തോന്നിയിട്ടില്ല